വയനാട്ടിൽ നമ്മള് നോക്കുവാണെങ്കിൽ എല്ലായിടത്തേയും പോലെ തന്നെ വിദ്യഭ്യാസ മേഖലയ്ക്ക് അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജില്ല തന്നെയാണ് അതിപ്പം സ്പോർട്സ് ആണേലും കരകൗശലമാണേലും തുടങ്ങിയ ഏതു മേഖലയെടുത്താലും വയനാട് നമുക്ക് ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജില്ല തന്നെയാണ് ഇപ്പൊൾ പറയുകയാണെങ്കിൽ കലാരൂപങ്ങൾക്ക് പണ്ട് പരമ്പരാഗതമായി തുടങ്ങി ഇപ്പം എത്തി നിൽക്കുന്ന വരെയുള്ള കലാ മേഖലകൾ കലാ രൂപവും കലാ പരമായ എല്ലാ മേഖലകൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എല്ലാ സ്കൂളുകളിലും സ്പോർട്സും ആർട്സും തുടങ്ങിയ എല്ലാം തന്നെ ഉണ്ട് അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഇത് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാനും അവരുടേതായ കഴികൾ കഴിവുകൾ വളർത്തിയെടുക്കുവാനും സാധിക്കുന്നു അതുപോലെ നമ്മുടെ സ്കൂ സർക്കാർ സ്കൂളുകളിൽ വച്ച് നോക്കുകയാണെങ്കിൽ അവിടെ സ്പോർട്സ് ആർട്സ് തുടങ്ങിയ മേഖലകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതും പ്രൈ പ്രൈവറ്റ് കോളേജ് പോലെ തന്നെ അവര് ഇപ്പോൾ ഒരു നല്ല ഒരിതിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും